ഞാൻ രണ്ടു മാസം മുന്നേ ഒരു ഫോൺ മേടിച്ചിരുന്നു എല്ലാം നോക്കിയിട്ടൊക്കെയാണ് മേടിച്ചത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് എനിക്ക് പ്രോഗ്രാമും പ്രോജക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോണിലൂടെയാണ് ചെയ്തു കൊണ്ടിരുന്നത് അപ്പോൾ രണ്ടു മാസം ആയുള്ളൂ ഫോൺ മേടിച്ചിട്ട് പക്ഷേ അത് ഭയങ്കര ലാഗ് ആണ് നല്ല സ്റ്റോറേജ് ഒക്കെ നോക്കിയാണ് ഫോൺ മേടിച്ചത് ഭയങ്കര ലാഗ് ആണ് റേഞ്ച് ആണെങ്കിൽ ഒട്ടും കിട്ടുന്നില്ല നമ്മൾ വേറെ കുറേ സിം ഒക്കെ മാറ്റി നോക്കിയിട്ടും ഒന്നും റേഞ്ച് കിട്ടുന്നില്ല സർവീസ് സെന്ററിൽ ഒരു സെന്റർ സെന്ററിൽ കൊണ്ടു പോയപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ അല്ല റേഞ്ചിൻ്റെ ആണെന്ന് ഒക്കെ പറഞ്ഞു പക്ഷേ ഇത് ഫോണിൻ്റെ തന്നെയാണ് വേറെ ഫോണിലൊക്കെ ഇടുമ്പോൾ കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഫോണിൽ മാത്രം ഇടുമ്പോൾ അത് കിട്ടുന്നില്ല പ അതുമല്ല ഭയങ്കര ലാഗ് ആണ് ഫോൺ ഒരു സാധനം കയറ്റാൻ മേല ഞാൻ കുറേ യൂസ് ചെയ്യുന്ന കുറേ ആപ്പുകളുണ്ട് ആപ്പുകളൊന്നും ഇതിൽ ഇൻസ്റ്റാൾ ആകുന്നില്ല ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ ഒരു ആപ്പും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ലാഗ് ആണ് എനിക്കിത് റീഫണ്ട് ചെയ്തു തരണം അല്ലാതെ വേറൊരു മാർഗ്ഗവും ഞാൻ പറ്റത്തില്ല ഇത് ഒന്നുകൂടെ നന്നാക്കി തന്നാലും ഇത് ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും പക്ഷേ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും റീഫണ്ട് ചെയ്തു തരണം ഈ മൊബൈൽ അല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ല ഭയങ്കര ലാഗ് ആണ് അതുമല്ല ചാർജ് നിൽക്കുന്നില്ല ഇവർ പറയുന്ന അത്രയും അയ്യായിരം എം എച് ബാറ്ററി പവർ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യായിരം പോയിട്ട് ഒരു മൂവായിരം പോലും നിൽക്കുന്നില്ല പെട്ടെന്നാണ് ചാർജ് ഇറങ്ങി പോകുന്നത് ഭയങ്കര കഷ്ടമാണ് ഈ മൊബൈൽ ഇതിന് എന്തെങ്കിലും നിങ്ങൾ ഒരു മാറ്റം ഉണ്ടാക്കി തരണം ഭയങ്കര കഷ്ടമാണ് ഇത് റീഫണ്ട് അല്ലെങ്കിൽ വേറൊന്നും കാണുന്നില്ല ഒന്നുകിൽ റീഫണ്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതിനുപകരം വേറൊരു മൊബൈൽ തരണം അല്ലാതെ ഇത് നന്നാക്കി തരാനുള്ള ഒരു നടക്കത്തില്ല നന്നാക്കി തരേണ്ട ഒന്നുകിൽ റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ പുത്തൻ ഫോൺ തരിക അതാണ് നടക്കുന്നത് ഇതുപോലുള്ള ഫോൺ നമ്മൾ കുറേ നെറ്റിലൊക്കെ നോക്കി ഇതിന്റിതൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇവർ പറയുന്നത് പോലെ ഒന്നും ഈ ഫോണിനകത്ത് ഇല്ല ഭയങ്കര ഇതാണ് ഈ ഫോൺ ഭയങ്കര ലാഗ് ആണ് അങ്ങനത്തെ ഇതൊക്കെയാണ്